മീൻ പിടിച്ചുകൊണ്ട് വരുന്നതും അതിൻ്റെ സാഹസികത നിറഞ്ഞ കുറേ കാര്യങ്ങളും ഉൾക്കടലിലോട്ട് പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതായത് വോമിറ്റിംഗ് വരെ ഉണ്ടാകും ഭക്ഷണം പോലും ശരിയാവില്ല അപ്പോൾ വരുന്ന തിരമാലകൾ വരെ കൂറ്റൻ തിരമാലകൾക്ക് ഇടയിലൂടെ അവർക്കിത് നടത്തണം എന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമേറേ ഉള്ള കാര്യങ്ങളാണ്

അപ്പം അത് അവിടുന്ന് കിട്ടി കൊണ്ടുവരുന്ന മീൻ ഈ കാറ്റിന്റെയും ദിശകളും ഒക്കെ നോക്കിയിട്ടാണ് അവർ അങ്ങോട്ട് തിരിച്ച് കരയിലോട്ടടക്കുന്നത്